ഇന്നലെ ആമസോണിൽ നിന്ന് ഒരു സാരി ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് അമ്മയുടെ ബർത്ഡേ പ്രമാണിച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് അ സാരി വാങ്ങിച്ചത് കോട്ടൺ സാരി ആയിരുന്നു വാങ്ങിച്ചത് അപ്പോൾ ആദ്യം പ്രോഡക്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം നല്ലതായിരിക്കില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ അത് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉദേശിച്ച കളറല്ല എങ്കിലും നല്ലൊരു കളറായിരുന്നു അത് കിട്ടിയത് അമ്മ ഉടുത്ത് നോക്കിയിട്ടും നല്ലതായിരുന്നു അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി ഉടുത്ത് നോക്കിയിട്ടും അതിൻ്റെ പറ്റേൺസും ഡിസൈൻസും എല്ലാം നല്ല ഞങ്ങൾ ഉദ്ദേശിച്ച രീതി തന്നെയാണ് കിട്ടിയത് പിന്നെ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ സാരിയുടെ ക്വാളിറ്റി നല്ല കോട്ടനാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ക്വാളിറ്റിയിൽ തന്നെയാണ് കിട്ടിയത് പിന്നെ ഞങ്ങളത് കഴുകി നോക്കി കഴുകിയിട്ട് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ചുരുങ്ങിയിട്ട് ഒന്നും ഉണ്ടായില്ല കളറൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അത് പോലെ തന്നെ ഞങ്ങൾക്ക് നല്ല കറക്റ്റ് സമയത്ത് ഡെലിവറിയായി കൃത്യ സമയത്ത് ഒട്ടും വൈകാതെ തന്നെയാണ് ഡെലിവറിയായത് അപ്പോൾ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി